ഇപ്പോൾ പഴയ തലമുറയുടെയും യുവതലമുറയുടെയും കാര്യങ്ങളൊക്കേ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പഴയ തലമുറ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും എന്താ പറയുക അന്ധവിശ്വാസങ്ങൾ അങ്ങനത്തേ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കൊണ്ടുനടക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഇപ്പം നമ്മൾ ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ഇപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വേറൊരു വീട്ടിലേക്ക് പോകാൻ പാടില്ല പിന്നേ ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു നല്ല ദിവസം അല്ല അങ്ങനെയൊക്കേ കുറേ കാര്യങ്ങളൊക്കേ അവർ കൊണ്ട് നടക്കുന്നവരാണ് കൊണ്ട് നടക്കാറുണ്ട് അപ്പോൾ യുവതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആയിട്ടും എന്താ പറയുക കുറച്ച് ഫ്രീക്കന്മാർ ആയിട്ട് എന്താ പറയുക ഇപ്പോൾ ടൗണിൽ കൂടി ചെത്തി നടക്കുക നല്ല രീതിയിലുള്ള പാൻറ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും കീറിയ പാൻറ് അങ്ങനത്തേ കാര്യങ്ങളൊക്കേ ഇട്ടിട്ടാണ് യുവതലമുറയൊക്കേ പോകുന്നത് ഇപ്പോൾ അവരുടേല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റ നമ്മൾ ഇപ്പം പഴയ തലമുറയും പറയുകയാണെങ്കിൽ രണ്ടു തലമുറക്കാരും കുറച്ചു വ്യത്യസ്തരാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും നമുക്ക് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചപ്പാടാണ് അതിലും നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മദ്യതലമുറയാണ് അപ്പം അവർക്ക് കൂടുതലായിട്ടും ഓരോ കാര്യങ്ങളൊക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമുണ്ട്